നമുക്ക് ഒത്തുപോവാൻ ബുദ്ധിമുട്ടുള്ള ഒരാളുമായിട്ട് നമുക്ക് ഒരിക്കലും ജോലി ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്തോ ഒരു മനസ്സിന് ദേഷ്യവും ഇതൊക്കെ ഉണ്ടാവും സ്വാഭാവികാണ് പക്ഷെ നമ്മുടെ ജോലി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആ ജോലിയിൽ ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് ദേഷ്യമോ അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരോടും നല്ല സന്തോഷത്തോടെ സംസാരിച്ച് അതായി കഴിഞ്ഞാൽ തന്നെ ആ ബുദ്ധിമുട്ട് അങ്ങ് ഒഴിവാകും നമുക്ക് ഇപ്പോൾ ഒരാളോട് ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ അയാളോട് മിണ്ടാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഇത് സന്ദർഭം വരികയാണെങ്കിൽ നമ്മൾ ആ ഇതൊക്കെ ഒഴിവാക്കി അവരോട് നല്ലോണം സംസാരിച്ച് അങ്ങനെ ജോലി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ആ ആ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കും പിന്നെ നമ്മൾ ജോലി ചെയ്യുന്നത് കൊണ്ടുതന്നെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ജോലിയിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക